ഹലോ ഇത് കേരള വാട്ടർ അഥോരിറ്റി അല്ലേ ഞാൻ സൈനുൽ ആബിദ് എൻ്റെ എനിക്ക് വാട്ടർ അധോറിറ്റിയിൽനിന്നും ബില്ലടക്കാനുള്ള ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു കഴിഞ്ഞ ആഴ്ച ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് എനിക്ക് വാട്ടർ ബില്ല് അടക്കാനുള്ള നോട്ടിഫിക്കേഷൻ വന്നത് എനിക്ക് ഈ സമയത്തിൻറ്റുള്ളിൽ അത് അടച്ച് തീർക്കാൻ കഴിയുന്നതല്ല അതിനാൽ എൻ്റെ ജോലി നഷ്ടപ്പെട്ടതിനാൽ എനിക്ക് ഈ സമയത്തിനുള്ളിൽ അത് അടച്ച് തീർക്കാൻ കഴിയുന്നതല്ല അതിനാൽ അടുത്ത മാസം പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വാട്ടർ ബിൽ അടച്ച് തീർക്കാമെന്ന് അഭ്യർഥിക്കുന്നു അതോടൊപ്പം എൻ്റെ ഈ അഭ്യർത്ഥന സ്വീകരിക്കണമെന്ന് ദയവായി വാട്ടർ അതോരിറ്റിയോട് ഞാൻ ആവശ്യപ്പെടുന്നു താങ്ക് യൂ